ഗുഡ് ആഫ്റ്റർനൂൺ

ഇയർലി ടെൻ തൗസൻ്റ് അല്ലെ അപ്പോ ആക്സിഡൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ എത്ര കിട്ടും ഓക്കേ

ഓക്കേ ആ നമുക്ക് നോക്കാം ഞാൻ ഒന്ന് തീരുമാനിച്ചിട്ട് ഞാൻ പറയാം ആ ഓക്കേ ഓക്കേ ഞാൻ ആലോചിച്ചിട്ട് പറയാം